ആ ഇത് ഫാർമർ അല്ലേ ആ ഞാൻ ഇവിടെ കോഴിക്കോട് ഉള്ളതാണേ നമുക്ക് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങൾ ഒക്കെ ഉണ്ടേ അപ്പം നിങ്ങളുടെ അടുത്ത് ഓൾമോസ്റ്റ് നല്ല ഫ്രഷ് ആൻഡ് നൈസ് വെജിറ്റബിൾസ് ആണ് ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞു അപ്പം നമ്മൾ കുറച്ച് ബൾക്ക് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ആണ് നിങ്ങളുടെ അടുത്ത് നിന്ന് വെജിറ്റബിൾസ് കുറച്ച് എടുക്കാൻ നമുക്ക് താൽപര്യം ആ അപ്പം നിങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവുമോ എന്ന് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത് നമുക്ക് കുറച്ചൊന്നും പോര അത്യാവശ്യം ബൾക്ക് ആയിട്ടുതന്നെ വേണ്ടി വരും എല്ലാം ഒരു അൻപത് കിലോ ഓൾമോസ്റ്റ് നിങ്ങള അടുത്തുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒരു അൻപത് കിലോ എങ്കിലും നമുക്ക് ചുരുങ്ങിയത് വേണ്ടി വരും ആ എല്ലാ ഐറ്റംസും അൻപത് കിലോ എങ്കിലും ആ ഓക്കെ കുഴപ്പമില്ല നമുക്ക് എപ്പം വന്നാൽ അത് എടുക്കാൻ പറ്റും ഓ നമ്മൾ വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി അഡ്വാൻസ് പേയ്മെന്റും ചെയ്തേക്കാം

ഓക്കെ കുഴപ്പം ഇല്ല നിങ്ങൾ എപ്പോഴത്തേക്കാണ് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുക ആ ടൈം നമ്മളോട് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ടൈമിൽ വന്ന് അത് കളക്ട് ചെയ്തോളാം ഓക്കെ നാളെ വൈകുന്നേരം ആ ഓക്കെ ഏകദേശം ഒരു സമയം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്

അഞ്ച് മണി അല്ലേ ഓക്കെ എന്നാൽ ഞാൻ ഒരു അഞ്ച് മണി ഒക്കെ ആവുമ്പം നിങ്ങളെ ഒന്ന് കോൺടാക്ട് വിളിച്ചേക്കാം എന്നിട്ട് നിങ്ങൾ ഏകദേശം നമ്മള അടുത്തിപ്പം ഏതൊക്കെ ഐറ്റംസ് ആണ് കൂടുതലും വരുന്നത് അല്ല നിങ്ങള അടുത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആവശ്യം ഉണ്ട് അപ്പം നിങ്ങൾ എല്ലാം തന്നെ പറിച്ചോളൂ കാരണം നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് അത് ഞങ്ങൾ കളക്ട് ചെയ്ത് എടുത്തോളാം ഓക്കെ